മലയാള ഭാഷയെ റേഡിയോ ആയിക്കോട്ടെ ടെലിവിഷൻ ആയിക്കോട്ടെ അച്ചടി ആയിക്കോട്ടെ ഇപ്പോൾ തഴഞ്ഞിരിക്കുകയാണ് വളരെ കുറവാണ് മലയാള ഭാഷ ഉപയോഗിക്കപ്പെടുന്നത് റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ഏറ്റവും കൂടുതൽ അച്ചടിയിലൂടെ പോലും ഇപ്പോൾ മലയാള ഭാഷ തഴഞ്ഞിരിക്കുകയാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്കും മറ്റ് ഭാഷയ്ക്കാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് റേഡിയോയിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാള ഭാഷയാണോ ഇംഗ്ലീഷ് ഭാഷയാണ് കൂടുതലും മലയാള ഭാഷയൊന്നും ഇപ്പോൾ എവിടെയും ഉപയോഗിക്കപ്പെടുന്നില്ല മലയാള ഭാഷയെ ആർക്കും ഇപ്പോൾ വേണ്ടാതായിട്ടുണ്ട് എല്ലാവരും മറ്റ് ഭാഷകളിലേക്കുള്ള ചാഞ്ചാട്ടമാണ് അതിനെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ എല്ലാവരും മറന്നിരിക്കുകയാണ് റേഡിയോ പോലെയുള്ളതിലും കേൾക്കുന്നത് മുഴുവനും മറ്റ് ഭാഷകളിലുള്ള പാട്ടുകളും മറ്റ് ഭാഷകളിലുള്ള പ്രവർത്തനങ്ങളുമാണ് മലയാളത്തെ അടിമുടി മാറ്റിയിരിക്കുന്നു ആർക്കും ഇപ്പോൾ മലയാള ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എല്ലാവരും മറ്റ് ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്